നല്ല രീതിയിൽ ഉപയോഗപ്പെടും കാരണം നമ്മുടെ മാനസിക ശാരീരികമായ അതൊരു പ്രശ്നങ്ങൾ നമുക്ക് മറക്കാനുമായ എല്ലാം ഉൾപ്പെടുന്നതാണ് പല കളികളും അത് അത്ര ഇപ്പോൾ വിദൂര സ്ഥലത്ത് ഒറ്റപ്പെട്ടതുമായ ഗ്രാമപ്രദേശത്തുള്ളവർക്കൊക്കെ എറ്റവും അവിടെയൊന്നും വേറൊരു എൻ്റർടെയിൻമെൻ്റ് പർപ്പസുണ്ടാവില്ലല്ലോ ടെലിവിഷൻ മൊബൈൽ ഫോൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തോണ്ട് അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ കളികളിലൂടെ തന്നെയാണ് അതവരുടെ മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തി കാര്യങ്ങൾക്കൊക്കെ എറ്റവും പ്രയോജനമാണ് പല രീതികളിലും എറ്റവും നമ്മൾ പ്രോൽസാഹിപ്പിക്കേണ്ടതാണ് കളിയെ പല കളികളേയും അതൊക്കെ തന്നെയെ ഉള്ളൂ